പാലക്കാട് ജില്ലയിൽ ഒരുപാട് വിനോദസഞ്ചാരകേന്ദ്രങ്ങൾ ഉണ്ട് നെല്ലിയാമ്പതി ടിപ്പുസുൽത്താൻറെ കോട്ട മലമ്പുഴ ഉദ്യാനം സീതാർകുണ്ട് കന്നിമര തേക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് സന്ദർശനം സന്ദർശകർക്ക് കാഴ്ചയ്ക്ക് നവ്യാനുഭൂതി നൽകുന്നതും ഒരു വിനോ വിനോദസഞ്ചാര പരമായിട്ട് വളരെയധികം ഗുണം ഉള്ളതുമാണ് ചരിത്ര ചരി ചരിത്രം ഒന്ന് പറഞ്ഞു ടിപ്പുസുൽത്താൻറെ കാലത്തു നിർമ്മിച്ച നിർമ്മാണ രീതികളും മറ്റു മറ്റുള്ള സവിശേഷതകളും ശില്പങ്ങളും ഒക്കെ കാണാൻ നമുക്ക് ടിപ്പുസുൽത്താൻറെ കോട്ട അതിന് ചുറ്റുമുള്ള കനാലുകൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇപ്പോഴും അത് ഒട്ടും അതിൻ്റെ ഒട്ടും കാഴ്ചയ്ക്ക് മങ്ങൽ ഏൽക്കാതെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചു പോകുന്നുണ്ട് എല്ലാം നെല്ലിയാമ്പതി എന്ന് പറയുന്നത് നമുക്ക് മറ്റു